സാങ്കേതിക പ്രൊഫഷണലുകളും അതുപോലെ സംരംഭകർ നിക്ഷേപകർ എന്നിവരെ ഒരുമിപ്പിച്ചു കൊണ്ടുള്ള കേരളത്തിലെ പ്രധാന സാങ്കേതിക പരിപാടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ബിസിനസ് മാനേജ്മെൻ്റ് അഡ്വാൻസ്ഡ് റിസർച്ചിനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനങ്ങള് ബിസിനസ് ആൻ്റ് ഫിനാൻസ് എന്നിവയൊക്കെ ഇത്തരത്തിലുള്ള സംരംഭകരും നിക്ഷേപകരെയും പ്രശ്നങ്ങളിലേ പ്രൊ പ്രൊഫഷനുകളെയൊക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന പ്രധാന സാങ്കേതിക പരിപാടികളാണ് അപ്പോൾ ഇവയിലൂടെയൊക്കെ നമുക്ക് നം നിക്ഷേപ ഇപ്പോൾ നമുക്കിടയിൽ നടക്കുന്ന നിക്ഷേപങ്ങളെ കുറിച്ചും പിന്നെ ബിസിനസ് കാര്യങ്ങളും പിന്നെ സംരംഭ ഏതൊക്കെ സംരംഭങ്ങൾ ഏതൊക്കെയാണ് പിന്നതിൻ്റെ ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്താണ് അതിൻ്റെ ഇപ്പോൾ ഓരോ പ്രോഡക്ടിൻ്റെ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഓരോ ബിസിനസുകാരും എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്ത് മറ്റുള്ള ഇപ്പോൾ ഓരോ സംരംഭങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഈയൊരു സാങ്കേതിക പരിപാടിയിലൂടെ സാധിക്കും അതുപോലെത്തന്നെ ഇപ്പോൾ ഒരുപാട് സാങ്കേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേർസുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മീറ്റപ്പ് ആയിട്ടും ഒരുപാട് ഇൻഫ്ലുവൻസെർസിൻ്റെ മീറ്റപ്പ് നടക്കാറുണ്ട് പിന്നതിന് അവർക്കൊരു ഒരു പ്രോത്സാഹനായിട്ട് അവർക്ക് അവാർഡ്കള് നൽകുന്നുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗായിട്ട് വരും